വിദ്യാഭ്യാസത്തിലും പുരോഗമന ചിന്താഗതി വന്നു കേരളത്തിലും എല്ലാവരും നന്നായി വിദ്യാഭ്യാസം കൈമുതലാക്കി ഒരു ജോലി വേണം കൂലി പണിക്ക് ആൾക്കാർ കുറഞ്ഞു കൂലി പണി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല നന്നായി പഠിച്ചാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പാരൻസും വന്നു യുവതലമുറയും വന്നു അപ്പം എല്ലാവരും പഠിക്കാനും അതിനോടനുബന്ധിച്ച് ജോലികൾ നേടി പുറത്ത് പോകാനുമാണ് ആഗ്രഹിക്കുന്നത് കാനഡ യു കെയുള്ള പോലെയുള്ള രാജ്യങ്ങളിൽ പോയി പഠിച്ച് നല്ല ജോലി നല്ല സാലറി നല്ല ലൈഫ് സ്റ്റൈലാണ് ഇപ്പോഴത്തെ യുവതലമുറകൾ ആഗ്രഹിക്കുന്നതും അവിടെ പോയി സെറ്റിലായ ആൾക്കാരും പക്ഷേ പണ്ട് കാലത്ത് ക്രിസ്ത്യൻ മ ക്രിസ്ത്യനിലല്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ നേരത്തെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴേക്കും കെട്ടിച്ച് വിടുന്നൊരു ഇതുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല പിന്നെ ഹിന്ദു കുട്ടികളെയും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കെട്ടിച്ച് വിടുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല എല്ലാവരും നല്ല വിദ്യാഭ്യാസം നല്ല ജോലി എന്നുള്ള കാഴ്ച്ചപ്പാടിലേക്ക് എത്തി ഇപ്പതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഒരാചാരവും ഇപ്പം ബാധിച്ചിട്ടില്ല ആർക്കും എല്ലാവരും നല്ല വിദ്യാഭ്യാസം നൽകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്